ഒത്തു പോകാൻ കഴിയാത്തൊരാളായിട്ട് ജോലി ചെയ്യണ്ട ഒരവസ്ഥ അതായത് അങ്ങനെ അത്രേം ഇതായിട്ടുള്ള അവസ്ഥ അല്ല എന്നാലും എനിക്ക് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളുമായിട്ട് എനിക്ക് ജോലി ചെയ്യേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മള് അധികം അതായത് ആളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ആളുടെ കാര്യങ്ങൾ മാത്രം ഇപ്പോൾ വേറെന്തും വേറെ ആരുടെയും നോക്കാണ്ട് സ്വന്തം കാര്യം മാത്രം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു ആളുടെ ചിന്താഗതിയും കാര്യങ്ങളും അപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് വന്നാലും ആൾക്ക് പ്രശ്നമല്ല ഇപ്പോൾ നമുക്ക് ബാധിക്കണ നമുക്കെങ്ങനെ അത് ബാധിക്കും അങ്ങനത്തെ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് നമ്മളെന്ത് ചെയ്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങള് വൃത്തിയായിട്ട് ചെയ്യാൻ നമ്മുടെ കൊളീഗ്സിനെ വേറെ ഉള്ള ആൾക്കാരെ നമ്മൾ കൃത്യമായിട്ട് ആയിരിക്കും ഇപ്പോൾ നമ്മൾ നമ്മുടെ അടിയിലുള്ള ആൾക്കാരാണെങ്കിലും കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങള് പറഞ്ഞ് കൊടുക്കുക അങ്ങനെയുള്ള രീതിയിലും കാര്യങ്ങളൊക്കെയായിട്ടാണ് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഇയാൾക്കൊരു തെറ്റ് പറ്റി തെറ്റ് പറ്റി എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഒരു അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളായിട്ട് ആള് ചെറിയൊരു ഇപ്പോൾ അയാളുടെ ഒരു കുറച്ച് പൈസയുടെ ഒരു മാറ്റം വന്നു അക്കൗണ്ട്സിൽ അക്കൗണ്ട്സിന്റേതിൽ ക്യാഷിൻ്റെ ഇതായിരുന്നു ആള് അപ്പോൾ ആളിൻ്റെ ക്യാഷിൻ്റെ ഇതിൽ കുറച്ച് മാറ്റം വന്നു അപ്പോൾ ആളാകെ പേടിച്ച് പോയി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്യാഷിൻ്റെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാകും കേസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ആളാകെ പേടിച്ചു പോയി നമ്മളുടെയടുത്ത് ഹെൽപ്പ് ചോദിച്ചില്ല പക്ഷെ ആളാകെ പേടിച്ചു എന്താ പറയുക വല്ലാത്തൊരവസ്ഥയിൽ പെട്ടു അപ്പോൾ നമ്മൾ നമ്മുടെ ആൾക്കാർ ഞാൻ ഞങ്ങൾ കൊളീഗ്സ് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ആ അത് ഇപ്പോൾ നമ്മുടേതായ രീതിയിൽ കുറച്ച് റെഡി ആക്കി അതായത് ഏകദേശം മുഴുവനായിട്ട് തുക നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം ഒരു തൊണ്ണൂറ് ശതമാനം പൈസ നമ്മൾ എല്ലാവരും കൂടെ ഒരു ചെറിയ പിരിവ് പോലെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തു അതോടുകൂടി ആളുടെ സ്വഭാവത്തിൽ കുറച്ചധികം മാറ്റം വന്നു ഇപ്പോൾ നമ്മളോടൊക്കെ നല്ല കോപ്പറേറ്റീവാണ് അപ്പോൾ ഇപ്പോൾ നമ്മളെ കണ്ടാൽ കാണുമ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല നല്ല ചിരിയും കളിയും സംസാരവും പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അപ്പോൾ അങ്ങനെയായി ഇപ്പോൾ ഞാൻ ഇതിൽനിന്ന് ഉൾക്കൊണ്ടൊരു കാര്യം പറഞ്ഞ് കഴിഞ്ഞാൽ എങ്കിൽ നമ്മളെങ്ങനെയാണോ ഒരാളോട് പെരുമാറുന്നത് അത് അയാളുടെ ജീവിത രീതിയെ തന്നെ മാറ്റാൻ നമുക്ക് സാധിക്കും